ഇരുപത്തിയാറ് ജൂൺ ആയിരത്തിത്തൊള്ളായിരത്തി അൻപത്തിയാറ് എട്ട് ജാനുവരി ആയിരത്തിത്തൊള്ളായിരത്തി എൺപത്തി ഒൻപത് പത്തൊമ്പത് നവംബർ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി നാല് പതിനാറ് ജാനുവരി ആയിരത്തിത്തൊള്ളായിരത്തി എൺപത്തി നാല് പതിനേഴ് ആഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട്